എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഉപ്പയുണ്ട് ഉമ്മയുണ്ട് പിന്നെ എനിക്കൊരു സിസ്റ്ററുണ്ട് അങ്ങനെ ഒരു ചെറിയൊരു കുടുംബമായിട്ടാണ് ഞാന് ജീവിക്കുന്നത് ഉപ്പാൻ്റെ ഉപ്പയൊക്കെ മരിച്ചു പോയി അവരൊരു രണ്ടുവർഷം മുന്നേയാണ് മരിച്ചു പോയത് പിന്നെ ഞാനും ഉപ്പയും ഉമ്മയും പെങ്ങളെ ഒരു ഒരാഴ്ച മുന്നെയാണ് കെട്ടിച്ചു വിട്ടത് അപ്പോൾ പെങ്ങൾ ഇപ്പോൾ ഇല്ല പെങ്ങള് ഇപ്പോൾ മലപ്പുറത്താണ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് അവര് ജീവിക്കുന്നത് ഇതാണ് എന്റെയൊരു കുടുംബമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരുമില്ല ചെറിയൊരു വീടാണ് വലിയ എന്താ പറയുക ഇപ്പോൾ ഒരു ഷീറ്റിട്ട വീടും കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം നല്ല രീതിയിലാണ് ഞാൻ ജീവിക്കുന്നത് ഞാനിവിടെ ഒരു സെയിൽസ് മാൻ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് അത്യാവശ്യം ചെറിയ രീതിയിലുള്ളൊരു ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടി കുടുംബത്തെ നല്ല രീതിയില് നോക്കുന്നുണ്ട് പിന്നെ ഉപ്പാക്ക് എന്താ പറയുക പുറമേ ഒരു കോൺട്രാക്ടറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് കൂടുതലായിട്ടും ജീവിക്കുന്നത് ഉപ്പ അത്യാവശ്യം കൂലിപ്പണിക്കും കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട് അങ്ങനെ ആണ് ജീവിക്കുന്നത്